മലയാളികള് കൂടുതലും എവിടെ ചെന്നെന്ന് പറഞ്ഞാലും കൂടുതലും അവരുടെ തന്നതായ ഭാഷയിൽതന്നെയായിരിക്കും സംസാരിക്കുന്നത് അതുപോലെതന്നെ നമ്മുടെ സിനിമ ചലച്ചിത്ര മേഖകളിൽ ഉള്ള സിനിമ ഡയലോഗുകൾ വേറൊരു സ്ഥലത്ത് ചെന്നാല് പെട്ടെന്ന് ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ആ വാക്ക്കള് കൂടുതലും ഉപയോഗിക്കാറുണ്ട് ഒരു മലയാളി വേറൊരു മലയാളിയെ മനസ്സിലാക്കാൻവേണ്ടിയിട്ട് ഇപ്പം സിനിമകളുടെ ഒരു സഹായം അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയാം മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെതന്നെ സാധനം കയ്യിലുണ്ടോ അതൊരു കോഡാക്കി മാറ്റിയിട്ട് വേറെയൊരു അന്യ രാജ്യത്ത് ചെന്നെങ്കിൽ പോലും അവിടെയുള്ള മലയാളികളെ കണ്ടുപിടിക്കാൻവേണ്ടി കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു മലയാളം വാക്ക് പറഞ്ഞാൽ തന്നെ അവര് പെട്ടന്ന് മലയാളി ആണെന്നുണ്ടെകിൽ തിരിഞ്ഞ് നോക്കും അത്രയ്ക്കും ഫേയ്മസ്സായിട്ടുള്ള സിനിമയിലെ ഒരു ഡയലോഗാണ് അത് അപ്പം അതൊരു കോഡായിട്ട് ഉപയോഗിച്ചിട്ട്തന്നെ മലയാളി സംസാരിക്കാറുണ്ട് മലയാളിക്ക് ഒരു മലയാളിയെ മനസ്സിലാക്കാൻ അവരുടെ ആ ഒരു ആ ഭാഷകൊണ്ട്തന്നെ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പലസ്ഥ അവരവരുടെ സ്ഥലത്ത് ചെല്ലുമ്പള്ത്തേയ്ക്കും അവരുടെ തന്നതായ ശൈലിയില് പറയുമ്പോൾത്തേയ്ക്ക് ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് ഒത്തിരി ഇഷ്ട്ട ഇഷ്ട്ടപെടുന്ന രീതിയിലായിരിക്കും ഒരോ ഓരോ സ്ഥലത്തിനും അവരുടെതായ തന്നതായ ശൈലിയുണ്ട് ഭാഷാ ശൈലിയുണ്ട് ആ ശൈലി ഒരു വേറിട്ട വാക്കായിരിക്കും ഒരാളെ സംബധിച്ചിടത്തോളം ചിലയിടത്ത് ചെല്ലുമ്പം ഒരു നല്ല വാക്കാണെന്നുണ്ടെങ്കിൽ മറ്റ് ചിലയിടത്ത് ചെല്ലുമ്പ അതൊര് ചീത്ത വാക്കായിട്ട്തന്നെ മാറും ഓരോ ഭാഷാ ശൈലിക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അതുപോലെതന്നെ ഇഷ്ട്ടപെടുന്നതും ഇഷ്ട്ടപെടാത്തതുമായിട്ടുള്ള ശൈലികളുണ്ട് അത് വ്യക്തികളെയും ആൾക്കാരെയും ആശ്രയിച്ചൊക്കെ ഇരിക്കും ഒരു സ്ഥലങ്ങളെയും ആശ്രയിച്ചിരിക്കും ഓരോ ഭാഷകളും ഭാഷയുടെ വ്യത്യാസങ്ങളും മലയാളിക്ക് മലയാളിയെ മനസ്സിലാക്കാൻ ഭാഷ തന്നെ ആണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്